ഹെലോ ഓക്കെ ഓക്കെ പറഞ്ഞോളു എന്തിന്റെയാണ് ആവശ്യം ഓക്കെ എന്ത് അസുഖത്തിന് വേണ്ടിയുള്ളതാണ് നിങ്ങളീ ചോദിക്കണത് ഓക്കേ നിങ്ങൾ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നടുവേദനക്കൊക്കെ ചെയ്യുന്നത് തിരുമ്മൽ കിഴി സ്റ്റീം ബാത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കുള്ള പേക്കേജാണ് വേണ്ടത് നമുക്ക് വണ് വീക്ക് ഉള്ളതുണ്ട് പതിനെട്ട് ദിവസമുള്ളതുണ്ട് ആ ഇവിടെ കിടന്ന് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാന് പ്രിഫെര് ചെയ്യുന്നത് ആ കൂടുതലും നിങ്ങൾക്ക് തിരുമ്മുണ്ട് നമ്മൾ വണ് കിഴി കുത്തൂണ്ട് നമ്മൾ ഞാന് പറഞ്ഞു തരാം ഒരു പാക്കേജ് റേയ്റ്റാണ് ത്രീ ഇങ്ങനെ ത്രീ ഡേയ്സ് സെവെന് ഡെയ്സ് എയ്റ്റീന് ഡെയ്സ് അങ്ങനെ ഉള്ള ഇതാണ് ആ അതാണ് നിങ്ങൾക്ക് ഏത് ഡേയ് എത്ര ഡേയ് ദിവസത്തേക്കു വേണം എന്നുള്ളത് പറഞ്ഞാൽ അതിന്റെതായ ഡേറ്റിന് നടക്കും മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസതെക്കാണ് ട്ട്വന്റി ഫൈവ് തൗസന്റ് വരും എത്ര പേര് ഒരാള്ക്കാണ് ഈ പറയുന്ന റേറ്റേ ഓക്കെ ഓക്കെ ട്ട്വന്റി ഫൈവ് തൗസന്റ് ആണ് നെക്സ്റ്റ് മന്ത് തേട്ടീയത്ത് ആവുമ്പോഴ്ത്തേക്ക് വേണേൽ ബുക്ക് ചെയ്തേക്കാം അന്ന് മുതല് അന്ന് മുതലെ അവെയ്ലബിള് ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ആ ആ അത് വരെ ബുക്കിങ്ങ് ഉണ്ട് മൂന്ന് ഓക്കെ ട്വന്റി ഫൈവ് തൗ ഇരുപത്തയ്യായിരം

ആ ഓക്കെ ആ ഇവിടെ കിടന്നാൽ എല്ലാം ഇവിടത്തെ രീതി അനുസരിച്ചായിരിക്കും ചെയ്യണത് കാരണം നിങ്ങൾക്ക് പുറത്തൊന്നും പോകാന് പിന്നെ പറ്റത്തില്ല അങ്ങന ഒക്കെ ആണെങ്കിൽ ആരേം വിസിറ്റേഴ്സിനെ ആ ആ ഞങ്ങളുടെ ആയുര്വേദ രീതിയിലുള്ളതായിരിക്കും വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല വേണ്ട വേണ്ട ആൾ മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടത്തെ സ്റ്റാഫ് തന്നെ നോക്കിക്കോളും ബുക്ക് ചെയ്തേക്കട്ടെ ഓക്കെ